തെരെഞ്ഞെടുപ്പ് സമയത്തു ധാരാളം ബഹളങ്ങൾ ഉണ്ടാവും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം എല്ലാ വാഹനങ്ങളിലും മൈക്കുകൾ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും ആകെ ശബ്ദ കോലാഹലമായിരിക്കും നമുക്കൊരു യാത്രയ്ക്ക് പോവാൻ ഒരു വാഹനവും കിട്ടുകയില്ല അപ്പം കൂടുതൽ സമയം പ്രചാരണങ്ങൾക്കു വേണ്ടി വൈദ്യുതി ഉപയോഗിക്കുന്നതു കൊണ്ട് സമ്മേളനങ്ങളും പൊതുപരിപാടികളും ജാഥകളും എല്ലാം ഉള്ളതു കൊണ്ട് വൈദ്യുതിക്ക് നിയന്ത്രണം വരും വൈദ്യതി നിയന്ത്രണം വരുന്നതു കൊണ്ടു തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമം അനുഭവിക്കും കാരണം എനിക്കൊരു ഓയിൽ മില്ലാണ് ഉള്ളത് അതിലെ കറണ്ട് വൈദ്യുതി മുടങ്ങുമ്പോൾ എൻ്റെ മിഷൻ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല